അന്ന് ഒപ്പനക്ക് വിടുമായിരുന്നു ഇപ്പം അല്ല കേട്ടോ സ്കൂൾ കാലഘട്ടത്തിൽ ഒപ്പനക്ക് വിടുമായിരുന്നു ഇപ്പം ഒന്നിനും കൂടാറില്ല പിന്നെ നാടോടി നൃത്തം ഒപ്പന അങ്ങനെ ഉള്ള ഇതിൽ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നല്ല ഇപ്പം എന്താ പറയുക ഇപ്പം ഓരോ റീൽസ് കാണുമ്പോൾ അങ്ങനത്തെ ഡാൻസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് നൃത്തരൂപങ്ങൾ മത്സരങ്ങളല്ല ചുമ്മ ഡാൻസ് ചെയ്യാനുള്ള ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണും പണ്ടൊക്കെ ഒപ്പനക്ക് വിടുമായിരുന്നു മത്സരിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് അത് കഴിഞ്ഞാൽ സംസ്ഥാനത്തേക്ക് ഉപജില്ല ജില്ല അങ്ങനെ ഒക്കെ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരാഗ്രഹം പിന്നെ പൊരേൻറ്റെടുത്തൊക്കെ വല്ല പരിപാടി ഒക്കെ വരികയാണെങ്കിൽ ചുമ്മ കസിൻസിൻ്റെ കൂടെ ഒക്കെ ഓർഡെ കൂടെ ഒക്കെ കൂടും അല്ലാതെ എന്താ പറയുക ഇഷ്ടമാണ് പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യം അങ്ങനെ അല്ലല്ലോ